പാത്രങ്ങളിലെ ഏറ്റവും കൂടുതൽ എണ്ണമയം പിടിച്ചാൽ ഉപയോഗിക്കുകയെന്ന് വച്ചു കഴിഞ്ഞാൽ സോപ്പുപയോഗിച്ച് കഴുകാം അതേപോലെത്തന്നെ സോപ്പ് അങ്ങനെ അതിനായിട്ടുള്ള ലിക്ക്വിഡൊക്കെയുണ്ട് വിം എന്നൊക്കെ പറഞ്ഞിട്ട് ലിക്ക്വിഡൊക്കെയുണ്ട് അതൊക്കെ യൂസ് ചെയ്ത് കഴുകിക്കഴിഞ്ഞാൽ കുറേ എണ്ണമയം പോവും അതുപോലെത്തന്നെ എണ്ണമയം വല്ലാണ്ടുണ്ടെങ്കിൽ ചെറുനാരങ്ങയൊക്കെ മുറിച്ച് പിഴിഞ്ഞ് ഈ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലോണം അതിൻ്റെ നീരായിക്കഴിഞ്ഞരച്ച് ഇത് പോകുന്നതായിരിക്കും അത് സോപ്പിട്ട് നല്ലോണം കഴുകും അതേപോലെ നല്ലോണം ഉരച്ച് കഴുകുകയാണെങ്കിൽത്തന്നെ എണ്ണമയം കുറേപ്പോകും പാത്രങ്ങൾ നമ്മൾ നല്ലോണം കഴുകുക അതേപോലെത്തന്നെ അതേപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അവിടെ പാത്രം വയ്ക്കാതെ അപ്പം തന്നെ കഴുകുകയാണെങ്കിൽ എണ്ണമയം കുറയും അങ്ങനെയൊക്കെയാണ് നടക്കുന്നുന്നത് എണ്ണമയത്തിന് ഏറ്റവും നല്ലതെന്ന് വച്ചാൽ പോകുവാനും ചെറുനാരങ്ങയാണ് ചെറുനാരങ്ങ അതേപോലെ വിം എന്നു പറഞ്ഞ ഒരു ഓയിലൊക്കെ കിട്ടും അതാണ് ഏറ്റവും നല്ലത് ചെറുനാരങ്ങേൻ്റെ ഓയിലാണത് സൊല്യൂഷനാണ് ഏറ്റവും നല്ലതതാണ് ഈ എണ്ണ ആയ പത്രങ്ങളൊക്കെ കഴുകി ഇതാക്കാനും എല്ലാത്തിനും നമ്മളിപ്പോൾ ബിരിയാണി കഴിച്ചാലും എന്ത് കഴിച്ചാലും എണ്ണയും നെയ്യുമൊക്കെ ആയിക്കഴിഞ്ഞാൽ ചെറുനാരങ്ങയാണ് ഏറ്റവും നല്ലത്